ഇന്നത്തെ സാഹചര്യങ്ങളിലും കാലഘട്ടങ്ങളിലും നമ്മള് വാക്ക് കേട്ടോണ്ട് ഉച്ചരിക്കാന് പോലും പറ്റാത്ത രീതിയിലുള്ള വാക്കുകളുള്ള രോഗങ്ങളാണ് നമ്മൾക്കിപ്പോഴുണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോള് ആ കൂടുതലാ രോഗങ്ങളിലേക്ക് നമ്മള് കടന്നുവരുന്നത് കൂടുതലും നമ്മുടെ ജീവിത ശൈലിയാണ് പുറത്തുള്ള ആഹാരങ്ങള് വീട്ടിലുണ്ടാക്കാത്ത പണ്ട് നമ്മള് ഒരു പനി വന്നാൽപ്പോലും നമ്മള് വീട്ടിലുണ്ടാക്കുന്ന ആ ചൂട് കഞ്ഞിയും ചുട്ടരച്ച ചമന്തിയും ആ പപ്പടവുമൊക്കെ കഴിക്കുമ്പോള് തന്നെ നമ്മുടെ ആരോഗ്യത്തിന് വെറും നല്ല ഒരു എണ്ണ തേച്ച് കുളി ഇന്നത്തെ കാലത്ത് ശരീരത്തില് ഏറ്റവും കൂടുതല് നമ്മള് പുറത്തുള്ള ആഹാരങ്ങള് വൃത്തിയില്ലായ്മ അങ്ങനൊക്കെയാണ് ഇപ്പോള് രോഗങ്ങള് കൂടുതലായിട്ട് ചെല്ലുന്നെ ഇപ്പോള് നമ്മള് പുറമേ നിന്ന് നോക്കുമ്പോള് നല്ലൊരു ഹോട്ടല് ആ ഹോട്ടലില് കയറി നമ്മള് ആഹാരം കഴിച്ച് നമ്മള് പക്ഷെ അതിന്റെ പിൻഭാഗത്തുള്ള വൃത്തികേടുകളോ ഒന്നും ആരും മനസിലാക്കുന്നില്ല അപ്പോള് അങ്ങനുള്ള ഈ കാലഘട്ടങ്ങളിലിന്നത്തെ യുവജനങ്ങൾക്ക് പോലും അവർക്കെന്ത് കിട്ടിയാലും വീട്ടിലുള്ള ഷവർമ്മ അതുപോലുള്ള പിന്നെ ബിരിയാണി പിന്നെ അങ്ങനെയുള്ള ആഹാരങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതലാള് കഴിക്കുന്നത് അപ്പോള് ഇതൊക്കെക്കൂടെ ഈ വൃത്തിയില്ലായ്മയിൽ നിന്നാണ് പല പല രീതിയിലുള്ള രോഗങ്ങളും നമ്മളെ ചുറ്റുവട്ടങ്ങളിലുണ്ടാകുന്നത് ഈ ചുറ്റുവട്ടങ്ങളില് രോഗങ്ങളുണ്ടാകുമ്പോള് തന്നെ നമ്മള് നമ്മള് തന്നെ അതിനെ നമ്മള് ജീവിത ശൈലി തന്നെ നമ്മള് പൊതുവെ മാറുവാണെങ്കില് ഈ കേക്കാമ്പാടില്ലാത്ത പേരുകളുള്ള അസുഖങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിലുണ്ടാകത്തില്ല നമ്മള് നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന നല്ല ഫുഡ്ഡുകള് പണ്ട് ദേ നമ്മള് പ്രഭാതത്തിലൊക്കെ രാവിലെ ആവി കയറ്റിയ ഭക്ഷണങ്ങള് അങ്ങനെയുള്ള രീതികളൊക്കെയാണ് ഉച്ചക്കാണെങ്കില് ചൂട് ചോറ് മീന്കറി വൈകിട്ടാണേലും ഇന്നങ്ങനെയല്ല ഇന്നത്തെ കുഞ്ഞ് ചെറിയ കുട്ടികള് മുതല് വലിയവര് വരെയും അവരുടെ അവര്ക്ക് തിരക്കു പിടിച്ച ജീവിതമാണ് ഈ തിരക്ക് പിടിച്ച ജീവിതത്തില് അവര് കാണുന്ന കടകളിലൊക്കെക്കയറി ഭക്ഷണം കഴിച്ച് ഇല്ലാത്ത രോഗങ്ങൾ വൈറസ് പോലെ പിടിച്ച് അതവരുടെ ഗ്രാമങ്ങളിലും മറ്റുള്ള സ്ഥലങ്ങളിലുമൊക്കെ കൊണ്ടുചെന്ന് മറ്റുള്ളവർക്കുങ്കൂടെ പിടിച്ച് കിട്ടും അത് കൊണ്ടാണ്